ഹലോ ഹലോ ആരാണ് ഹലോ ആ ആ അതെ അതെ ജിസ് ബേക്കാണല്ലോ ആരാണ് വിളിക്കുന്നത് ഓക്കെ ഓക്കെ എപ്പോഴത്തേക്കാണ് വേണ്ടത് നാളെ വൈകിട്ടതേക്കല്ലേ ഓക്കേ ഓക്കേ ഏത് ഫ്ലേവറാണെന്ന് അറിയാവോ അവൈലബിളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൂടുതലും ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇപ്പം കൂടുതലും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ പോവുന്നുണ്ട് അതുപോലെ തന്നെ വാനില പിസ്ത റെഡ് വെൽവെറ്റ് അതൊക്കെയാണ് കൂടുതലും പോവുന്നത് പിന്നെ നട്ട്സിൻ്റെ തന്നെയുണ്ട് നട്സിൻ്റെ ഇച്ചിരെ ഒരു റേറ്റിന് വ്യത്യാസം വരും മറ്റേ സാധാരണ വാനിലേക്കാട്ടിലൊക്കെ അങ്ങനെ ഏതാണ് വേണ്ടത് നമ്മളുടെത് പൊതുവേ സോഫ്റ്റാണ് വരുന്നത് നട്സിൻ്റെ വരുമ്പോഴ്ത്തേക്ക് അതിൽ അറേബ്യനിലാണല്ലോ പ്രിഫർ ചെയ്തേക്കുന്നത് അതിൽ വരുമ്പോഴ്ത്തേക്ക് നമ്മുടെ അത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ബദാമിൻ്റെ വരുന്നുണ്ട് പിസ്തയുണ്ട് കാഷ്യൂ നട്ട് വരുന്നുണ്ട് ഇതെല്ലാം കൂടെ മിക്സഡായിട്ടാണ് അറേബ്യൻ്റെ ഇതിൽ വരുന്നത് ഫ്ലേവറിൽ വരുന്നത് റേറ്റ് വരുന്നത് നമ്മൾ ഹാഫ് കെ ജി തൊട്ടാണ് നമ്മൾ ചെയ്ത കൊടുക്കുന്നത് ഹാഫ് കെ ജിയുടെ വരുമ്പോഴ്ത്തേക്കും നമുക്കൊരു സെവൻ ഫിഫ്റ്റി ആണ് വരുന്നത് പിന്നെ നമ്മുടെ വൺ കെ ജിടെ വരുമ്പോഴ്ത്തേക്ക് ഒരു വൺ തൗസൻഡ് ഒക്കെ വരും ആ ചോക്ലേറ്റിൻ്റെ വരുമ്പോഴ്ത്തേക്കും കുറച്ചുടെ റേറ്റ് കുറവ് വരും കേട്ടോ

ഓക്കേ ഓക്കേ അ ടോപ്പിൽ ടോപ്പിൽ ചെയ്താൽ മതിയല്ലോ അല്ലേ

അല്ലേ കുറച്ചു മതിയല്ലേ അ ഓക്കേ ഓക്കേ ആ അത് ചെയ്യാം നിങ്ങൾക്കിപ്പം എന്തേലും ഡിസൈൻസോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനീ വാട്സ്ആപ്പ് നമ്പറാണേ അപ്പം അതിലോട്ടൊന്ന് ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ രീതീൽ ചെയ്ത് തരാം

ഓക്കേ ഓക്കേ എപ്പോഴത്തേക്കായിരിക്കും വേണ്ടി വരുന്നത് നാളെ വൈകിട്ടത്തേക്കാണ് ഓക്കേ ഞാനിവിടെന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് ആ ലൊക്കേഷൻ ഒന്ന് ഇട്ടു തരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡെലിവറി ചെയ്തോളാം ഡെലിവറി ചാർജ് ഒരു എക്സ്ട്രാ ഒരു അൻപത് രൂപയും കൂടെ വരുവായിരിക്കും അതും കൂടെ കൂട്ടി പെയ്മെൻ്റ് അന്നേരത്തെ ചെയ്താൽ മതി ആ ഓക്കേ ഓക്കേ

ഏറിക്കന്നല്ലേ ഓക്കേ ഓക്കേ എനിക്ക് ആ കറക്റ്റ് സ്പെല്ലിംഗും കൊച്ചിൻ്റെ ഫോട്ടോയോ അങ്ങനെ എന്തേലും ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അയക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കുറച്ചൂടെ ഡെക്കറേറ്റീവ് ആക്കാൻ പറ്റും നമുക്ക് കേക്കെ

ഓക്കേ ഓക്കേ ആ ഞാൻ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്

ഓക്കേ ഓക്കേ ഞാൻ ഞങ്ങളിപ്പോൾ അവിടെ വന്ന് ഡെലിവറി ഒന്നെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ആളുടെ കയ്യിൽ പെയ്മെൻ്റ് കൊടുക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പറ് ഞാൻ തരാവെ അതിലോട്ട് ചെയ്താലും മതി ഗൂഗിൾ പേ ചെയ്ത് ആ ഓക്കേ ഓക്കേ ആ അതാകുമ്പം നല്ലതായിരിക്കും ആ എന്നാൽ ശരി എന്നാൽ ഓക്കേ